കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വഴി ഗുണനിലവാരമുള്ള വിത്തുകൾ കൃഷിക്ക് അനുയോജ്യമായ വിത്തുകളും

വാഴ വാഴക്കന്ന് മാവ് പ്ലാവ് അതുപോലെ കൂണ് ഇതുപോലെ ഇതിൻ്റെ വിത്തുകൾ തൈയ്യുകൾ ചേന ചേമ്പ് ഇങ്ങനെയുള്ള തൈകളും പിന്നെ ഗുണനിലവാരമുള്ള നെൽ നെൽക്കൃഷിക്ക് ആവശ്യമായ നെൽവിത്തുകളും

നമുക്ക് ശേഖരിച്ച് നൽകാം സഹകരണ സ്ഥാപനങ്ങൾ ശ്രമിക്കാറുമുണ്ട് അതുവഴി

കൃഷി ഗുണനിലവാരം കൂട്ടാനായി പറ്റുന്നുമുണ്ട് ഇത് കൃഷിക്കാറ് കേരളത്തിലുള്ള കൃഷിക്കാർക്ക് വളരെ അനുകൂലമായും ഗുണ ഗുണപരമായും മാറുന്നുമുണ്ട്